ഈ പ്രദേശത്ത് കാണപ്പെടുന്ന പക്ഷികൾ തത്ത മൈന കുരുവി കാക്ക ഈ ഇങ്ങനെ പലതരം പക്ഷികൾ ഈ പ്രദേശത്ത് വരാറുണ്ട് പ്രഭാത കാലങ്ങളിലാണെങ്കിൽ ഈ പക്ഷികൾ രാവിലെ ശബ്ദം ഉണ്ടാക്കി ജനങ്ങളെ ഉണർത്തുന്നതിന് പതിവാണ് സ്ഥിരമായി ഈ പക്ഷികൾ നിന്നു പ്ലാവ് മാവ് എന്നീ വൃക്ഷങ്ങളുടെ മണ്ടയിലിരുന്നുകൊണ്ട് ശബ്ദം പുറപ്പെടുവിക്കുകയും അതുകേട്ട് രാവിലെ തന്നെ ഉണരുവാൻ ജനങ്ങൾക്കു കഴിയുകയും ചെയ്യുന്നു പക്ഷികളുടെ ശബ്ദം നല്ല സ്വരമുള്ളതാണ് ചില പക്ഷികൾ നല്ല രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നു മറ്റു ചിലത് അങ്ങനെയല്ല പക്ഷെ ശബ്ദം നല്ല രീതിയിൽ ആയിരിക്കുകയില്ല എല്ലാ പക്ഷികളുടെയും ശബ്ദം ഒന്നുപോലെ അല്ല മൈന ക തത്ത തത്തയാണ് സ്ഥിരമായി ഞങ്ങളുടെ പ്ലാവിൽ വന്നിരുന്ന് അങ്ങനത്തെ ശബ്ദമുണ്ടാക്കാറുള്ളത് പിന്നെ പക്ഷെ അതിന് ഭക്ഷണവും ധാരാളം അവിടെ നിന്ന് കിട്ടുന്നു പക്ഷികളതുകൊണ്ട് ഈ പ്രദേശം വിട്ടുപോകാറില്ല പക്ഷികൾ ആ പ്രദേശത്തു തന്നെ ചുറ്റിപ്പറ്റി പറന്നു നടക്കുന്നു മരംകൊത്തിയാണെങ്കിൽ വീട്ടിൻ്റെ പ്ലാവ് തെങ്ങ് ഈ സ്ഥിരമായി വലിയ ഹോളുകൾ സൃഷ്ടിച്ച് അത് അതിനകത്ത് കയറിക്കൂടുന്നു അതുപോലെതന്നെ ശബ്ദം ഉണ്ടാക്കുന്നു ചിലതരം ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു എന്നാൽ ത തത്ത അങ്ങനെയല്ല അത് നിശ്ശബ്ദമായിത്തന്നെ ഇരിക്കുന്നു അത് മറ്റുള്ളപേര് ശ ശല്യവും ഉണ്ടാക്കുന്നില്ല മൈനയും അതുപോലെതന്നെ അതുപോലെ കാക്കയാണെങ്കിൽ ഇഷ്ടമാണ് ഇഷ്ടംപോലെ കാക്കകൾ വരുന്നു ചക്ക മാങ്ങ ഇട്ടക കിട്ടക വർഗ്ഗങ്ങൾ ഭക്ഷിക്കുന്നതിനാണ് അത് തേ അത് ക വരാറുള്ളത് അതു കഴിച്ചു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഭയങ്കര സന്ധ്യ സമയമാകുമ്പോൾ കാക്കകളുടെ സ്വരം ഉച്ചത്തിലാകുന്നു രാവിലെവരെയും കാക്കകൾ ഇങ്ങനെ പറന്നു നടക്കുന്നു രാവിലെ മറ്റ് പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇത് പറന്നുപോകുന്നു സ്ഥിരമായും നമ്മുടെ ഭൂപ്രദേശത്ത് കാക്കകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാൽ എല്ലാ പക്ഷികളുമുണ്ട് എങ്കിലും കാക്കകളുടെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത് കാക്കകൾ ഒരുപാട് മരങ്ങളുള്ളതിനാൽ ഭക്ഷിക്കുവാൻ വേണ്ടിയാണ് അതു വരാറുള്ളത് മര ഭക്ഷിച്ചു കഴിഞ്ഞ് അത് ആ പ്രദേശം വിട്ടു പോകാറുമില്ല ഒത്തിരി ദിവസങ്ങളായി പക്ഷികൾ ഇവിടെ തിങ്ങിപ്പാർക്കുന്നു മരങ്ങൾ ധാരാളമുള്ള ഞങ്ങളുടെ സ്ഥലം ചക്കയും മാങ്ങയും അതുപോലെയുള്ള കഴിക്കാൻ പേരയ്ക്ക എല്ലാ എല്ലാതരം ഫ ഫലങ്ങളുള്ള സ്ഥലമാണ് അതു കാരണം പക്ഷികളുടെ കൂട്ടം നല്ലരീതിയിൽത്തന്നെയുണ്ട് എനിക്കേറ്റവും കൂടുതലിഷ്ടം തത്തയുടെ ശബ്ദമാണ് തത്ത ഒ പ്ലാവുകളിൽ ശ് ധാരാളമായി വരാറുണ്ട് വന്ന് ഇരിക്കാറുണ്ട് പറന്നു പോകാറുണ്ട് സന്ധ്യാസമയങ്ങളിൽ പോയിട്ട് വീണ്ടും തിരിച്ചുവരും അതിൻ്റെ ഒരു നല്ല ഒരു ഇതു തന്നെയിവിടെയുണ്ട് കാക്കയും അതുപോലെതന്നെ കാക്ക ഭക്ഷണങ്ങൾ കഴിച്ചാലും അതു വിട്ടു പോകില്ല അവിടെത്തന്നെ നിലനിൽക്കും ഇങ്ങനെ ഈ പ്രദേശത്ത് ധാരാളം പക്ഷികൾ ഉണ്ട് എല്ലാം നല്ല രസമാണ് ശബ്ദമുണ്ടാകുന്നത് കാണാൻ പല പല പക്ഷികളും പലരീതിയിലാണ് ശബ്ദമുണ്ടാകുന്നത് അത് കേൾക്കുവാൻ ഇമ്പമുള്ളതുണ്ട് ഇല്ലാത്തതുമുണ്ട് എങ്കിലും എപ്പോഴും പക്ഷികളൊരു സമയവുമില്ലാതിരിക്കില്ല എല്ലാ സമയവും പക്ഷികൾ ഈ പ്രദേശത്ത് വന്ന് ചേരാറുണ്ട് സന്ധ്യയാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബഹളത്തോടുകൂടി പക്ഷികൾ വരാറുള്ളത് പക്ഷികൾ രാവിലെ പ്രഭാതമാകുമ്പോഴും അതുപോലെതന്നെ ഉച്ചസമയങ്ങളിൽ പൊതുവെ കാണാറില്ല കാറ്റും അതുപോലെയുള്ള മഴ ആ സമയങ്ങളിൽ കാണാറില്ല മഴയില്ലാത്ത സമയങ്ങളിൽ ഏതു സമയം നോക്കിയാലും മരങ്ങളിൽ ഏ പക്ഷികൾ ഇരിക്കുന്നതായി നമുക്ക് കാണാം മഴയാണെങ്കിൽ ഒരു ഒരു പക്ഷിയെപ്പോലും കാണുന്നില്ല അതെവിടെയൊക്കെയോ പറന്നു പോകുന്നു മഴ മാറി നല്ല അന്തരീക്ഷമാകുമ്പോൾ തിരികെ വരുന്നു രാവിലെയും അതുപോലെതന്നെ മഴസമയങ്ങളിൽ ഒരു ഒരു പക്ഷികളും ചെക്കാറില്ല ഇവിടെ ഈ നിൽക്കുന്ന പക്ഷികളതും ഒക്കെ എല്ലാ മരങ്ങളിലും പക്ഷികളുണ്ട് ഒരു മരം പോലും വെറുതെയിടാറില്ല പലതരം പക്ഷികൾ കൊണ്ടു നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് പക്ഷികൾക്കും നല്ല ഒരു സമയമാണ് കാണാനും നല്ല ഭംഗിയാണ് പല നിറത്തിലും പല ചെറുതും വലുതുമായ പക്ഷികൾ ഉണ്ട് ഒപ്പൻ ഒപ്പൻ എന്നു പറയുന്ന പക്ഷി ധാരാളമായുണ്ട് അതുപോലെത്തന്നെ മൈന ചെറിയതും വലുതുമായി ഒത്തിരി മൈനകളും ഈ പ്രദേശത്തുണ്ട് അതുപോലെത്തന്നെ കാക്ക കാക്കയും ധാരാളമായി വരുന്നു